ഇപ്പം നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ യുവാക്കൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ കാരണം എന്നു എന്താ വെച്ചാൽ ഏത് ആളുകളെ എടുത്തു നോക്കിയാലും ഒരു ഡിഗ്രി കഴിയാത്ത ആളുകൾ വളരെ ചുരുക്കേണ്ടതാകുള്ളൂ എന്നാൽ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലിയൊന്നും അവർക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ലയെന്നു മാത്രമല്ല നമ്മളെ ഈ ഇത്രയും ഇതും വിദ്യാഭ്യാസം പഠിച്ചിട്ടും ഒരു ജോലി കിട്ടാത്തത് വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എന്താ അതിനെ കുറിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ യുവാക്കള്ക്കിടയിലും അതായത് പിന്നെ ഇപ്പം വീട്ടിലിരിക്കുന്ന അമ്മമാർക്കായാലും പത്താം ക്ലാസോ പ്ലസ് ടു ഒക്കെ വിദ്യാഭ്യാസമുള്ള അമ്മമാരൊക്കെയുണ്ടാകും അവർക്കു കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകണം പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു എന്താണ് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആളാണ് പക്ഷേ എന്തു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ഉപരി അതായത് എനിക്ക് ഒരു ജോലിക്ക് പോകാനോ അതിനൊന്നും പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ എന്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെയായിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ഒരു ഡിഗ്രി കപ്ലീറ്റ് ചെയ്ത ഒരാളാണ് പക്ഷേ എന്റെ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞു തടഞ്ഞു വെച്ചിരിക്കയാണ് എനിക്കത് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെയാണ് മറ്റുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പഠിച്ച് അത്രയും ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടിയ ആൾക്കാർക്ക് വരെ ആ പഠിച്ച് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് ഒരു ജോലിക്ക് എവിടേക്ക് പോകണം എന്തു ചെയ്യണം പിന്നെ അവരാശ്രയിക്കുന്നത് അന്യ രാജ്യങ്ങളൊക്കെ അവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ജോലിചെയ്യാന് നമ്മളുടെ നാട്ടിൽ പഠിച്ച ഒരു ഇത് അവർക്ക് ഈ നാട്ടിൽ കിട്ടണില്ല അവർ പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്